പോളിയോയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാന് നമ്മുടെ ഗ്രാമത്തിലൊന്നുമല്ല എല്ലായിടത്തും ഇപ്പോള് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പോളിയോ വാക്സിൻ എടുക്കുകയെന്നുള്ളതാണ് അതിപ്പോള് പോളിയോ വാക്സിൻ നമുക്ക് ഹോസ്പിറ്റൽ മുഖേനയും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ മുഖേന ഹെൽത്ത് സെന്ററുകള് മുഖേന അംഗൻവാടികൾ മുഖേന ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോള് അത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് അത് അതുപോലെതന്നെ വർ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം എന്ന രീതിയിലാണ് പോളിയോ വാക്സിൻ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് അതായത് ആറു മാസത്തിൽ ഒരിക്കല് കൊടുക്കും ന്നാണ് തോന്നുന്നത് പോളിയോ വാക്സിൻ ആറ് മാസം കൂടുമ്പോഴാണ് കൊടുക്കുന്നത് അതുപോലെ നമ്മളുടെയിവിടെയൊക്കെ ആണെങ്കില് ഹെൽത്ത് സെന്ററുണ്ട് ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോയിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ വാക്സിൻ കൊടുക്കുന്നത് അപ്പോള് അവരുടെ കയ്യില് നമ്മുടെ വാർഡിലുള്ള അല്ലേ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളുടെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകും അപ്പോള് അവരത് വച്ചിട്ട് നോക്കും അവിടെ കൊണ്ടുവന്ന ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കില് അവിടെ ആശാ വർക്കര് മുഖേന അവര് നമ്മുടെ വാർഡില് അന്വേഷിക്കുകയും അങ്ങോട്ട് പോയി കൊടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവര് വീടുകളിൽ അന്നുതന്നെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും അങ്ങനെ നമ്മള് അവടെ ഹെൽത്ത് സെന്ററില് കൊണ്ടുപോയി പോളിയോ വാക്സിൻ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തില് കൊട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാതിരിക്കുകയോ ആ ആണെങ്കില് അവരത് നമുക്ക് വീട്ടിലും എത്തിച്ച് തരുന്നുണ്ട് അത് കൃത്യമായിട്ട് അവര് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് കൊടുത്തോ ഇല്ലയോന്നുള്ളത് അങ്ങനെ പോളിയോ വാക്സിൻ എടുത്ത് കുഞ്ഞുങ്ങള് ടെ അവരുടെ വീട്ടിൽത്തന്നെ വന്നത് ഇടയ്ക്കൊക്കെ മാർക്കെയ്തിട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട് വാക്സിൻ എടുത്തതാണ് എന്നുള്ളത് അങ്ങനെ ഈയൊരു ഇതുമാത്രമേ നമുക്ക് പോളിയോയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാന് ചെയ്യുന്നതായിട്ട് നമ്മുടെ അറിവിലുള്ളൂ